നമ്മളുടെ പ്രദേശത്തെ പ്രശസ്തമായ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ട് ജി വി എച്ച് എസ് എസ് ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രത്യേകതാന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത് അതുപോരാഞ്ഞിട്ട് അതിന് പുറമെ ഫീസ് കാര്യങ്ങൾ അങ്ങനെ ബുക്കിൻ്റെ പൈസ പി ടി എ ഫണ്ട് അങ്ങനെയുള്ള ഒരുപാട് പൈസകൾ വേണം ചേരാൻ പോകുമ്പോൾ തന്നെ നല്ലൊരു പൈസ ചെലവാണ് പ്ര കൂടുതൽ പറഞ്ഞാൽ പൈസ കെട്ടി പഠിക്കുന്നതാണ് ഈ പ്രൈവറ്റിലൊക്കെ എന്നാൽ ഗവൺമെൻറ്ന്ന് ആണെങ്കിൽ മാസത്തില് വരുന്ന ഒരു പിടിഎ ഫണ്ട് മാത്രമേയുള്ളൂ വേറെ ഒരു പിരിവു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ആയിട്ട് ഗവൺമെൻറ് പ്രൈവറ്റ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പ്രൈവറ്റ് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഗവൺമെന്റിലും പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് പഠിപ്പിക്കുന്നത് തന്നെയാണ് പ്രൈവറ്റ് പഠിപ്പിക്കുന്നത് എന്നാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള പൈസ ഉള്ള ആൾക്കാർക്കാരുകളൊക്കെ പ്രൈവറ്റിലാണ് കുട്ടികളെക്കൊണ്ട് പോയി ചേർത്തുന്നത് എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ ഗവൺമെന്റിൽ തന്നെയാണ് പഠിക്കുന്നത് ഞാനും ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ് പഠിച്ചതും